ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടേ എൻ്റെ മംഗളകരമായ ഒരു ദിവസത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ഞാൻ ആഗ്രഹിച്ച ദിനങ്ങൾ അതിൽ ഉപരി എനിക്ക് വെസ്റ്റ്ഷൻ അല്ലെങ്കിൽ സന്യാസ സന്യാസത്തിൻ്റെ അതായത് ഞാൻ ഒരു സിസ്റ്ററാകുന്ന ദിവസത്തെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നീണ്ട വർഷങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥനാ പൂർവ്വം ഒരുങ്ങിയ നിമിഷങ്ങളായിരുന്നു അത് അവിടെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പതിമൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ സിസ്റ്ററാകാൻ ഒരുക്കാനായിട്ട് ഞങ്ങൾക്ക് വിവിധ കാലഘട്ടത്തിൽ പല പല സ്റ്റെപ്പുകൾ ആയിട്ടാണ് ഞങ്ങൾ അവസാനം സിസ്റ്ററായിട്ട് മാറുന്നത് അപ്പം ഒരു സന്യാസ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ തന്നെ എന്നെ ആദ്യമായി സ്വീകരിച്ചു ഞങ്ങളുടെ മിസ്ട്രസ്മാർ അതുപോലെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായി വന്ന വിവിധ വീടുകളിൽ നിന്ന് വന്ന പിന്നെ ബാലികമാർ അല്ലെങ്കിൽ യൂത്താണ് ഞങ്ങൾ ഒന്നിച്ച് കൂടി ഞങ്ങളുടെ ഈ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പരിശീലനമൊക്കെ നേടി ഞങ്ങൾ അന്ന് സിസ്റ്ററാകാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിന് ഞാൻ സിസ്റ്ററായി മാറുകയാണ് അതായത് ഒരു സന്യസിയായി മാറുകയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് വലിയ ഒരു ഞാൻ ഈശോ തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ പുണ്യ ദിനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ബാക്കി എല്ലാം എനിക്ക് തന്നെങ്കിലും പക്ഷേ എൻ്റെ ഞാൻ ഒരു സിസ്റ്ററായി എൻ്റെ വ്രതാർപ്പണത്തിലൂടെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട ദിവസം അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കാരണം അതിനുവേണ്ടി ഞാൻ ഒത്തിരി ഒരുങ്ങിയ ദിവസങ്ങളാണ് പ്രാർത്ഥനാ പൂർവ്വം ഞാൻ ഈശോയുടെ ഇംഗിതം അതായത് ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് അല്ലെങ്കിൽ ഈശോ എന്നെ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഞാൻ യോഗ്യത ഇല്ലല്ലോ എന്നിട്ടും എന്നെ ഈശോ വിളിച്ചു സ്വന്തമാക്കി അതല്ലേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ സാഫല്യം അപ്പം അങ്ങനെ ആയിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ രണ്ടോ മൂന്നോ വർഷമാണ് ഇതിന് പരിശീലനം നേടിയത് അപ്പോൾ ഈ പരിശീലനം നേടാൻ വേണ്ടി ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ മൂന്ന് വർഷങ്ങൾ നടന്നു നീങ്ങിയത് ഇനി അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരുക്കുമ്പോൾ ഞങ്ങളുടെ മിസ്ട്രെസ്സുമാർ പുണ്യപ്പെട്ട മൂന്ന് സിസ്റ്റർമാരെയാണ് ഞങ്ങൾക്ക് മിസ്ട്രെസ്സുമാരായിട്ട് കിട്ടുന്നത് അങ്ങനെ ആ സിസ്റ്റർമാരിൽ നിന്ന് കിട്ടിയ ഈശോ അനുഭവം സ്വയം നമ്മൾ ധ്യാനിച്ച് കൊണ്ടിരിക്കുമ്പോഴുള്ള ഈശ്വരാനുഭവം അതുപോലെ വ്യക്തികൾ പരസ്പരം കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ഈശോ അനുഭവം അതുപോലെ കുടുംബത്തിൽ നിന്ന് കിട്ടിയൊരു പാരമ്പര്യം ഉള്ള ഒരു നല്ല ഒരു കുടുംബ ജീവിതത്തിൽ കിട്ടിയ ഈശോ അനുഭവം ഇതെല്ലാമാണ് ഞാൻ അത് പതുക്കെ പതുക്കെ ഹൃദ്യസ്ഥമാക്കി കൊണ്ടാണ് ഈ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അങ്ങനെ ഞാൻ അപ്പോൾ ഈ പിന്നെ എൻ്റെ പിന്നെ സന്യാസ ജീവിതത്തിലേക്കുള്ള ആഘോഷമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് അതിനുള്ള പ്രാക്ടീസ് ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ കൈപിടി കൊണ്ട് ഞങ്ങൾ ക്ഷണിക്കുന്ന ദിനമായിരുന്നു അതായത് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ അറിയിക്കുന്നു ഞാൻ ഇതാ യോഗ്യതയായി ഈശോയുടെ മണവാട്ടിയാകാനുള്ള യോഗ്യത എനിക്ക് ലഭിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ എല്ലാവരും ഈ പുണ്യ ദിനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു ആഘോഷിക്കുക ആഘോഷത്തിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു ആഴ്ച മുഴുവനും ധ്യാനമായിരുന്നു ആ ധ്യാനം മുഴുവനും ഈശോ സ്വന്തമാക്കാനുള്ള പ്രക്രിയകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ധ്യാനഗുരുവിൽ നിന്ന് വളരെയേറെ സന്തോഷകരമായ അനുഭവം ഈശോയെ സ്വന്തമാക്കാനുള്ള വലിയ കൃപ ഈശോ നമുക്ക് നൽകുകയും ചെയ്തു അങ്ങനെയാണ് സന്തോഷ ദിനത്തിൽ ഞങ്ങൾ എല്ലാവരുമൊന്നിച്ച് വെള്ള വസ്ത്രധാരികളായിട്ട് എല്ലാവരും ബൊക്കെയക്കെ പിടിച്ച് കൈയിൽ ഒരു ബൊക്കയും അതുപോലെ തന്നെ നെറ്റും മുടിയൊക്കെ വച്ച് ഞങ്ങൾ ഒരു പ്രസഷനായിട്ട് പ്രദിക്ഷണമായിട്ട് എൻ്റെ അധികാരികളുടെ അന്നത്തെ പ്രഫഷനും അതുപോലെ ഞങ്ങളെ പരിശീലിപ്പിച്ച സിസ്റ്റർമാരും കൂടെ ഈ പതിമൂന്ന് പേരും കൂടെ ഒരുമിച്ച് ലൈനായിട്ട് അന്ന് അസംഷൻ കോളേജിൽ വച്ചായിരുന്നു ഞങ്ങളുടെ പരിപാടി ഓഡിറ്റോറിയത്തിൽ വച്ച് ആരാണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനപതിയായ അതിരൂപതയുടെ സ്ഥാനപതിയായ മാർ ആൻ്റണി പടിയറത്ത് കാവായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രഫഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷന് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് വന്ന മുഖ്യ കാർമ്മികൻ അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും വന്നിരിക്കുക ആ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുക എല്ലാവർക്കും ആനന്ദത്തിൻ്റെ തൻ്റെ മകൾ ദേ ഈശോയുടെ മണവാട്ടിയാകാൻ പോകുന്നു എന്നുള്ള ആ വലിയ സന്തോഷത്തോടു കൂടെ സ്വന്തപ്പെട്ട അപ്പനും അമ്മയും അതുപോലെ ബന്ധുക്കളൊക്കെ വന്നു നിരന്നിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾക്ക് വ്രത വാചകം തരും ഈ വ്രത വാചകത്തിൽ ജനങ്ങളുടെ മുന്നാകെ സഭയുടെ മുന്നാകെ ഞങ്ങൾ വ്രതം വാഗ്ദാനം ചെയ്യുക ഏതൊക്കെ അനുസരണം ബ്രഹ്മചര്യം അതുപോലെ തന്നെ ദാരിദ്രം ഈ മൂന്ന് വ്രതങ്ങൾ നമ്മടെ ഈശോയുടെ മുന്നിൽ സഭയുടെ മുന്നിൽ നമ്മൾ അർപ്പിക്കുക അങ്ങനെ അർപ്പിച്ചു കൊണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏ ഴ് ഡിസംബർ ഇരുപത്തി ഏഴിന് ഞങ്ങൾ ഞാൻ ഒരു സിസ്റ്ററായിട്ട് മാറിയത് അത് കഴിഞ്ഞും ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആന്ദത്തിൻ്റെ ദിനങ്ങളായിരുന്നു വീട്ടുകാർ എല്ലാവരും സമ്മാനങ്ങൾ തരുന്നു അതു പോലെ തന്നെ ഞങ്ങൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂരിൽ തൃശ്ശൂർ വരെ പോവേണ്ടതാണ് അന്നേരം ആ സമയങ്ങളിൽ എല്ലാം ആ ഞങ്ങളുടെ കുടുംബമായിട്ട് പോകുന്ന നിമിഷങ്ങൾ അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും കൂടെ

ഈശോയുടെ സ്വന്തമാകു എന്നു പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമല്ലെന്ന് അന്നാണ് എനിക്ക് ബോധ്യമായത് എന്നെക്കാളും എന്തേര് കഴിവുള്ളവർ വിദ്യഭ്യാസമുള്ളവർ ഒക്കെയുണ്ട് പക്ഷേ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു കാരണം ഈശോ തൻ്റെ മണവാട്ടിയാകാനായിട്ട് വിദ്യഭ്യാസമോ സൗന്ദര്യമോ പൊക്കമോ വണ്ണമോ ഒന്നും നോക്കുന്നില്ല ഈശോയ്ക്ക് നമ്മുടേതായ ഈശോയുടെ ഈശോക്ക് ഇണങ്ങിയ മനസ്സ് ഈശോക്ക് ഇണങ്ങിയ പ്രിയപ്പെട്ടവൾ ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുത്ത ആ ദിവസം എനിക്കും വളരെ സന്തോഷമായിരുന്നു ആ ഒരു കൃപ ദൈവത്തിൻ്റെ കൃപ ഏറ്റവും അധികം നേടിയ ദിവസമായിരുന്നു അത് ആകയാൽ ഈ സന്തോഷത്തിൽ എനിക്ക് എനിക്ക് ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ലഭിച്ചല്ലോ അല്ലെങ്കിൽ ദൈവം എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ എന്ന് ഓ ർത്ത് ഇന്നും ഞാൻ അതിൽ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്തോഷം ഞാൻ പകർന്നു കൊണ്ട് നിർത്തട്ടെ ആമേൻ